ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഡിസബിളിറ്റീസ് ഉണ്ടാവും കണ്ണ് കാണത്ത മെയിൻലി ഈ ബ്ലൈൻഡ് ഈ ബ്ലൈൻഡ് ആൾക്കാർക്കൊക്കെ ഒരു സെപ്പറേറ്റ് ഒരു ആപ്പ് പോലെ ഉണ്ട് ഇപ്പം ബി എം എസ് അല്ലങ്കിൽ ടെക്സ്റ്റൽ ആപ്സ് അതൊക്കെ നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ബ്ലൈൻഡ് പീപ്പിൾ വേണ്ടി മാത്രം ഇപ്പ ഈ രീതിയിൽ പറഞ്ഞാൽ മതി ടൈപ്പ് ചെയ്താൽ മതി അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് തന്നെ അത് ആൾ തന്നെ അത് പറഞ്ഞ് തരും എന്താ ടൈപ്പ് ചെയ്തത് എന്തൊക്കെയാ എന്തൊക്കെയാ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇപ്പോൾ അങ്ങനൊക്കെ ഈ ഈ ഈ ആപ്പ്സ് ഒക്കെ നല്ല ഉപയോഗമുണ്ടാവും ഈ കുറേ ബ്ലൈൻഡ് പീപ്പിളും വേണ്ടിയും അപ്പോൾ നമുക്ക് ഇത് ഇതൊക്കെ ഇനിയും ഈ വേൾഡിൽ നല്ല ഉപയോഗം ഉണ്ടാവും ഈ ഡിസിബിളിറ്റീസ് ഉള്ള അപ്പോൾ കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ മൂവ്മെൻ്റ് ഉണ്ടാവില്ല അപ്പോൾ സ്പീക്കിങ് സംസാരിക്കാൻ മാത്രം ഒരു ആപ്പ് ചിലപ്പോൾ ഉണ്ടാവും അപ്പം അങ്ങനൊക്കെ അപ്പോൾ ജസ്റ്റ് ഇത് ഇനിയും ഡെവലപ്പ് ചെയ്താൽ ഭയങ്കര സഹായം സഹായം ഉണ്ടാവും ഭയങ്കര ഹെൽഫുള്ള് ആവും അപ്പം നമുക്കിങ്ങനൊക്കെ നോക്കി നമ്മൾ ഈ രീതിയിൽ നോക്കി നോക്കിയാൽ നമ്മൾ നമുക്ക് കാണാം എങ്ങനെ ഈ വേൾഡിൽ ഇത് ഇത് ഡെവലപ്മെൻ്റ് ഒക്കെ കാണാം അത് ഭയങ്കര സന്തോഷമായ കാര്യമാണ് ഇപ്പോൾ ഇന്ന് ഈ ഞാൻ പറയാൻ പറ്റിയ ബ്ലൈൻഡ് പീപ്പിൾ ഒക്കെ ചിലപ്പോൾ ഭയങ്കര ഭയങ്കര ഒരു ഒരു സാഹചര്യം സാഹചര്യം ആയിരിക്കും ചില ചില ഏരിയാസിൽ അപ്പോൾ ഇപ്പം ഈ ആപ്പ് ഈ ആപ്പ്സ് ഒക്കെ ഭയങ്കര യൂസ്ഫുള്ളും അപ്പോൾ നമുക്ക് ഇതൊക്കെ നല്ല ഇവർക്ക് നല്ല ഇതാവും മൈൻഡ്സെറ്റ് അവർക്ക് എൻകറേജ്മെൻ്റ് ആകും അവർക്ക് വേണ്ടി തന്നെ അപ്പോൾ ഇതൊക്കെ ഈ ഈ ടൈപ്പ് ഈ ട്രാൻസ്ലേഷൻസ് ഒക്കെ അവർക്ക് നമുക്ക് ഒക്കെ ഫീലിങ്ങ്സ് പറയാനോ അവരുടെ എന്താ ഹെൽപ്പ് അതൊക്കെ നമുക്ക് അവർക്ക് ഭയങ്കര ഇത് ഇത് ഉണ്ടാവും പിന്നെ നമുക്ക് കുറേ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അവർക്ക് ടാലൻ്റ് ഇപ്പോൾ പറയാണെങ്കിൽ ഈ ആപ്പ് യൂസ് ചെയ്താൽ മതിയാവും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി അത് അത് ഒന്ന് ലിസ്ണർന് വേണ്ടി കേൾക്കുന്ന അളിന് വേണ്ടി അത് പറഞ്ഞ് കൊടുക്കും അപ്പോൾ അതാണ് അവരുടെ ഒരു മൈൻ്സെറ്റ് അവരുടെ മൈൻഡ്സെറ്റ് അപ്പംതന്നെ മാറും അതുകൊണ്ട് എനിക്ക് അവർക്ക് അറിയാം ഇതൊക്കെയുണ്ടെന്ന് അവരുടെ ഫ്യൂച്ചറ് സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ടാലൻ്റ് ടാലൻ്റ് ടാലൻ്റ് എന്ന് പറയാൻ പറ്റില്ല ഐ മീൻ ഒരു യൂസ് യൂസ്ഫുൾനെസ്സ് ഒരു ഉപയോഗം ഏതൊക്കെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഡെവലപ്മെൻ്റിൽ ഇപ്പം ഇപ്പം ഇപ്പം ഈ ഈ കുറേ ഇതൊക്കെയുണ്ട് എന്താ ആ ചിലപ്പോൾ ഡിഫറെൻ്റ് പീപ്പിള് ഉണ്ടാവും അപ്പോൾ ഇത് ഭയങ്കര ഉപയോഗം ഉണ്ടാവും ഒരു ഇത് കൊടുത്താൽ മതി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതെല്ലാം ഓക്കെ ശരി